ഞാൻ ഇവിടെയൊന്നും അല്ലല്ലോ എല്ലാം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഗാർഡനിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ആ വച്ചിരിക്കണ ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കണ ചെടികളെ ആയാലും മരങ്ങളെ ആയാലും നമ്മൾ നല്ല പോലെ പരിപാലിക്കണം ദിനചര്യം പരിപാലിക്കണം പ്രത്യേകിച്ച് എല്ലാ ചെടികൾക്കും എല്ലാ ദിവസവും നമ്മൾ വെള്ളമൊഴിക്കണം നമ്മളിങ്ങനെ മടി പിടിച്ച് എന്നാൽ വേണ്ട ഇന്ന് വെള്ളമൊഴിക്കേണ്ട നാളെ വെള്ളമൊഴിക്കാം എന്ന് വച്ച് വച്ച് ഒരിക്കലും ഇരിക്കരുത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കേരളത്തിലുള്ള വേനൽക്കാലം എന്നൊക്കെ പറയുമ്പം ഭയങ്കര ചൂടാണ് അപ്പോൾ നമുക്ക് നമ്മൾ മനുഷ്യർക്കുതന്നെ സഹിക്കാൻ പറ്റണില്ല അപ്പോൾ നമ്മ വെള്ളമൊന്നുമൊഴിക്കാണ്ട് കൊടുത്തു കഴിഞ്ഞാ അത് ചെടികൾക്കത് ഒട്ടും വളരാൻ സാധിക്കില്ല അവർ പെട്ടന്ന് ഉണങ്ങിപ്പോവുകയും ചെയ്യും അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെയാണെങ്കിൽ നമ്മൾ രണ്ട് നേരം വെള്ളമൊഴിക്കാൻ മഴക്കാലത്താണെങ്കിൽ വെള്ളം കൂടിയാലും പ്രെശ്നമാ സൊ മഴക്കാലത്ത് നമ്മൾ ഒന്നരാടം വീതമൊക്കെ വെള്ളമൊഴിച്ചാലും മതിയാകും അത് ഓരോ ചെടികളുടെ വെള്ളം എത്ര ആവശ്യം വരും അതനുസരിച്ചിരിക്കും സൊ ഞാൻ ഇതാണ് ദിനചര്യം ചെയ്യാറുള്ള കാര്യം പിന്നെ നമ്മളതിനെ നല്ലപോലെ പരിപാലിക്കണം നമ്മൾ വെറുതെ അവിടെ നട്ടതുകൊണ്ട് അത് തന്നെ വളരില്ല അതെന്തായാലും അത് പിന്നെ ചെടികളെയൊക്കെ നമ്മൾ നല്ല പോലെ നോക്കണം അപ്പോൾ നമ്മൾ ഞാനിവിടെ ചെയ്യണത് എല്ലാ ദിവസവും നമ്മൾ വളമൊന്നുമിട്ട് കൊടുക്കേണ്ട നമ്മൾ ആഴ്ച്ചയിലിങ്ങനെയിടേണ്ട ഓരോ വളങ്ങളുണ്ട് വിഷങ്ങൾ നമ്മൾ പരമാവധി നമ്മൾ പുഴുക്കളോ ഇപ്പം വെജിറ്റബിൾസൊക്കെ തരണ മരങ്ങളായാലും നമ്മൾ അത് പെട്ടന്നുണ്ടാവാൻ വേണ്ടി നമ്മൾ കുറേ മരുന്നുകളടിച്ച് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ തന്നെ ആ വിഷമേറിയ പച്ചക്കറികൾ നമ്മൾ തന്നെ കഴിക്കേണ്ടി വരും നമ്മൾ അതിന് വിഷങ്ങൾ ചേർക്കാണ്ട് നല്ല ആയ നല്ല പച്ചയായ വളങ്ങൾ ചേർക്കാൻ നോക്കുക ഒട്ടും കെമിക്കലൊന്നും ഇല്ലാത്ത വളങ്ങൾ ഇവിടെ ഞാനത് എത്ര എത്രയാണോ വളങ്ങളുടെ അളവ് അതനുസരിച്ച് എല്ലാ ചെടികളിലും പരമാവധി ഇടാൻ നോക്കാറുണ്ട് അപ്പോൾ നമ്മൾക്കത് കുറച്ച് കൂടി വളരാനൊക്കെ സഹായിക്കും പിന്നെ നമ്മൾക്കിപ്പോൾ ചെടികളിൽ നമ്മൾ മനുഷ്യരിൽ വരണ കുഞ്ഞ് കുഞ്ഞ് അസുഖങ്ങളിടയ്ക്കിടെ വരും അപ്പോൾ നമ്മളതിനെ മരുന്ന് കൊടുത്ത് അതിനെ മാറ്റിയെടുക്കണ പോലെ തന്നെ ചെടികൾക്ക് ചിലപ്പോൾ ഒരു അസുഖങ്ങൾ വരും ചിലപ്പോൾ വേറെ ഇതുകൾ വന്നിരിക്കും ലൈക്ക് എക്സാമ്പിൾ മിലി ബഗ് പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വരും അപ്പോൾ നമ്മളതിനെ മിലി ബഗ് വന്നുവെന്ന് വെച്ച് നമ്മളതിനെ ഉപേക്ഷിക്കരുത് നമ്മളത് അതിന് കുറച്ച് അതിൻ്റേതായ കുറച്ച് മരുന്നുകളുണ്ട് അതുകൾ നമ്മൾ തളിച്ച് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാ ചെടീനെ പൂർവ്വാധികം ശക്തിയോടെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളത് നല്ലപോലെ എപ്പോഴും നോക്കണം നമ്മൾ നോക്കാണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കില്ല നമ്മളെപ്പോഴും നോക്കികഴിഞ്ഞാൽ നമ്മൾക്ക് ചെടികളിൽ വരണ മാറ്റം നമുക്കപ്പം കാണാൻ പറ്റും അപ്പോൾ വല്ല മാറ്റങ്ങൾ വരുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചെയ്യുകയൊക്കെ ചെയ്താൽ അവർ നല്ലപോലെ വളരും നമ്മളൊന്നും നോക്കാണ്ടിരുന്നുകഴിഞ്ഞാൽ അതെന്തായാലും കരിഞ്ഞു പോവുകയോ ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യും വെള്ളം കൂടിയാലും ചീയും അപ്പോൾ നമ്മളെപ്പോഴും നല്ലപോലെ ചെടികൾ വെയ്ക്കുക നമ്മൾക്ക് പരമാവധി എത്ര ചെടികൾ വെച്ചെന്ന് നമുക്കത്ര നല്ല ശുദ്ധമായ വായു കിട്ടും അതെപ്പോഴും നമ്മുടെ ഒരു ഹോബിയായിട്ട് കയ്യിൽക്കൊണ്ടു നടക്കുക ചെടികളെ വെയ്ക്കാനും അത് ദിനചര്യയും പരിപാലിക്കാനും നോക്കണം